ശരീരഭാരം കൂട്ടണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ഫുഡ്ഡ് കൂടുതലായിട്ട് കഴിക്കണം സംഗതി പ്രോട്ടീനടങ്ങിയ ഫുഡ്ഡ്കൾ കഴിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഭാരം കൂടും അതുപോലെ തന്നെ ഇറച്ചീ മീൻ മാംസാഹാരങ്ങൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ ശരീര ഭാരം കൂടും പിന്നെ ഇതിൻറ്റകത്ത് വിദ്യകൾ നാട്ട് വി വൈദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വൈദ്യങ്ങളിൽ നമ്മൾ ശരീരഭാരം കൂട്ടാനായിട്ട് നമ്മൾ എക്സർസൈസൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ശരീരഭാരം കൂടും ഫുഡ്ഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കഴിച്ചാലും ഭാരം കൂടും ഇതൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ഫുഡ്ഡ് കഴിയ്ക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുവൈദ്യങ്ങൾ വൈദ്യത്തിൽ ഇവിടെ പറയുന്നത് കാരണം പിന്നെ ഇപ്പം ഒരു നോൺവെജ്ജ് കഴിക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ മാംസ്യം കൂടുതൽ ഉപയോഗിക്കുക സസ്യാഹാരങ്ങൾ കുറക്കുക പ്രോട്ടീൻ ഫുഡ്ഡ്കൾ കൂട്ടുക ഇതൊക്കെ നമ്മുടെ ശരീരഭാരത്തെ അമിതമായ രീതിയിൽ കണ്ട്രോള് ചെയ്യും അതുകൊണ്ട് ശരീരഭാരം കൂട്ടാൻ നാട്ടുവൈദ്യത്തിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് അതാണ് എന്നെ ഇതിനെ കുറിച്ച് എനിക്ക് പറയുവാൻ ഉള്ളത്